ഞങ്ങളുടെ വീട് എന്ന് പറയുന്നത് ഭയങ്കര ഒരു താഴ്ന്ന പ്രദേശത്താണ് എന്ന് വച്ചാൽ ഒരു കടലോര പ്രദേശത്താണ് ഒരു താഴ്ന്ന പ്രദേശമായത് കൊണ്ട് തന്നെ അവിടെ മെയിനായിട്ടും കൃഷി രീതി എന്തെന്ന് വച്ചാൽ കൃഷി ഒക്കെ ഉള്ളത് നെല്ല് അരി അങ്ങനത്തെ സാധനങ്ങളാണ് തെങ്ങ് ഒക്കെയാണ് അപ്പോൾ ഈ മാറി വരുന്ന കാലാവസ്ഥ ഇപ്പോൾ ഈ പല ടൈമിൽ പല സമയത്ത് മഴ പെയ്യും പലപ്പോൾ പല സമയത്ത് ചുടാവും അങ്ങനെ ഒരു ഓർഡെറില്ലാത്തതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് കാരണം ഒരു കൃത്യമായിട്ട് നമുക്കൊന്നും കൃഷി ചെയ്ത് തുടങ്ങാൻ സാധിക്കില്ല ഒരു സംഭവം തുടങ്ങിക്കഴിഞ്ഞാൽ അത് അവസാനിപ്പിക്കുമ്പോൾ ഇപ്പം തുടങ്ങുമ്പോൾ മഴ വേണം പക്ഷേ ആ സമയത്ത് മഴ പെയ്തില്ലെങ്കിൽ ആ കൃഷി തുടങ്ങാൻ പറ്റില്ല പിന്നെ തുടങ്ങറാവുമ്പോൾ അവസാനിക്കാറാവുമ്പോൾ നല്ല വെയില് വേണം പക്ഷേ ആ സമയത്ത് വെയിൽ വെയിൽ വന്നില്ല അതിന് പകരം നല്ല മഴ വന്നു അങ്ങനെയാണെങ്കിൽ ആ കൃഷി മൊത്തത്തിൽ നശിച്ചു ഞങ്ങളുടെ അവിടെ കൂടുതലും പുഞ്ചക്കൊഴുത്തൊക്കെയാണ് അപ്പോൾ നല്ല വെള്ളമൊക്കെ വേണം അപ്പോൾ വെള്ളമൊന്നും കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്കവിടെ കൃഷി ചെയ്യാനേ പറ്റാറില്ല പല ടൈമിലും കൂടുതലും വരൾച്ചയല്ല കൂടുതലും ഞങ്ങളുടെ അവിടെ സംഭവിക്കാറ് കൂടുതലും വെള്ളപ്പൊക്കമാണ് അപ്പോൾ ഈ വെള്ളപ്പൊക്കം കാരണം വെള്ളം ഇങ്ങനെ കെട്ടി നിന്ന് കെട്ടി നിന്ന് കൃഷികളൊക്കെ ചീഞ്ഞു നശിച്ചു പോവുകയാണ് ഉണ്ടാവാറ് പിന്നെ തെങ്ങൊക്കെ നല്ലോല്ല സ്ഥല മായിരുന്നു ഞങ്ങളുടെയൊക്കെ പിന്നെ ആ സ്ഥലത്തൊക്കെ ഇപ്പം തെങ്ങൊന്നും തീരെ ഇല്ല ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കാരണം തീരെ തെങ്ങൊന്നും ഇല്ലാത്തത് കൊണ്ട് വളരെ ഏറെ ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് വച്ചാൽ എൻ്റെ ഒരു വല്യച്ഛൻ കൃഷിക്കാരനാണ് അദ്ദേഹത്തിന് ഒരു പത്ത് കൊല്ലമായിട്ട് ഇപ്പോൾ തുടർച്ചയായിട്ട് ഇപ്പം ഒരു പത്ത് കൊല്ലമായിട്ടും മുഴുവൻ നഷ്ടമാണ് എന്ത് തുടങ്ങിയാലും ഒക്കെ നശിച്ചു പോവുകയാണ് കൃഷി തുടങ്ങിയാ എല്ലാം അപ്പോൾ തന്നെ നശിച്ചു പോകും അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് കന്നുകാലി വളർത്തൽ അതൊക്കെ ഉണ്ട് കന്നുകാലികളും അതെ ഇതേ അവസ്ഥ തന്നെ എന്ത് തുടങ്ങിയാലും അപ്പോൾ നശിച്ചു പോകും പിന്ന ഇപ്പളും കൃഷിയിൽ തന്നെ കോൺസെൻഡ്രേറ്റ് ചെയ്യേണ്ട അവസ്ഥയിലാണ് കാരണം എന്താണെന്ന് വച്ചാൽ എപ്പോഴാണ് കാലാവസ്ഥ മാറുന്നത് എന്ന് നമുക്ക് അത് അറിയാൻ പറ്റുന്നില്ല പിന്നെ ഗവൺമെൻ്റും ഇതിനു വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്തെങ്കിലും മാറ്റമൊക്കെ ഉണ്ടെങ്കിലും ഗവണ്മെൻ്റും ഒന്നും ചെയ്യുന്നില്ല ഇങ്ങനത്തെ മാറി വരുന്ന കാലവസ്ഥകളെ കുറിച്ചിട്ടൊന്നും അവർ അത് ചിന്തിക്കുന്നേയില്ല കാരണം അവരുടെ വിചാരം കൃഷിയൊന്നും ഒന്നും അല്ല എന്നാണ് പക്ഷേ എന്താണ് കൃഷിയാണ് നമുക്ക് വേണ്ടത് കൃഷിയില്ലെങ്കിൽ നമുക്കൊന്നും ജീവിച്ച് പോകാൻ പറ്റില്ല നമുക്ക് ഇങ്ങനെ ഭക്ഷണം കഴിക്കണമെങ്കിൽ കൃഷി തന്നെ വേണം നമുക്ക് പിന്ന വെറുതേ ജീവിച്ച് പോവാൻ പറ്റില്ലല്ലോ അതിനും കൃഷി തന്നെ വേണം നമ്മൾ കൃഷിക്ക് തീരെ ഒരു പ്രാധാന്യം നമ്മളെ ഗവൺമെൻ്റോ വേറെ ആരും കൊടുക്കുന്നില്ല നമ്മൾ സാധാരണക്കാർ പോലും അതിന് കൊടുക്കുന്നില്ല കാരണം നമ്മൾ തിരക്കിന് ഇടയിൽ ഓടുമ്പോൾ നമ്മൾ കൃഷി എന്നീ സാധനങ്ങളൊക്കെ മറക്കുകയാണ് പിന്നെ അതേ പോലെത്തന്നെ പല കർഷകരും ആത്മഹത്യ ചെയ്യുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് കാരണം എന്താണ് അവർക്ക് വിളവ് നശിച്ചു അവർക്ക് വെള്ളം കിട്ടിയില്ല അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയി അവരുടെ വിളവ് മൊത്തത്തിൽ പോയി അപ്പോൾ അവരുടെ ആ കൊല്ലത്തെ മൊത്തം അദ്ധ്വാനവും നഷ്ടപ്പെട്ടത് കൊണ്ട് അവർക്ക് വേറെ ജീവിത മാർഗം ഇല്ലാത്തത് കൊണ്ട് പല ആൾക്കാരും ആത്മഹത്യ ചെയ്യുകയാണ് അതിനൊക്കെ തടയ തടയണമെങ്കിൽ നമ്മളെ ഗവണ്മെൻറ്റും നമ്മൾ എല്ലാവരും ഒരുമിച്ച് ശ്രമിക്കണം ഈ അനാവശ്യമായിട്ട് നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്ന ഈ തെറ്റുകളും ഒക്ക നമ്മൾ കുറക്കണം ഈ പ്രകൃതിയോട് ചെയ്യുന്ന തെറ്റുകൾ കൊണ്ടാണ് ഇങ്ങനെ കുറേ കാലാവസ്ഥ മാറ്റങ്ങളും നമ്മൾ ഈ മരം വെട്ടുക അതുപോലെ തന്നെ കുറേ കാട് കത്തിക്കുക പുഴകൾ കയ്യേറുക കായലുകൾ കയ്യേറുക അതുകൊണ്ട് ഒക്കെയാണ് നമ്മൾ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു വിധമൊക്കെ ഒരു രീതിയിൽ കുറച്ചാൽ നമുക്ക് ഒട്ടുമിക്ക ഇങ്ങനത്തെ പ്രശ്നങ്ങളും കുറക്കാൻ പറ്റും പിന്നെ ഈ കാലാവസ്ഥ മേഖല കാലാവസ്ഥ വകുപ്പുകളും ഇത് കൺ പറയുന്ന ആൾക്കാരൊക്കെ വളരെയേറെ കാലാവസ്ഥയൊക്കെ കൂടുതൽ ഒന്ന് ശ്രദ്ധിച്ച് കൃത്യമായ നിയമങ്ങളും കൃത്യമായ സമയത്ത് അത് എന്തൊക്കെ വരും കാറ്റ് വെരോ ചൂട് വെരോ തണുപ്പ് വരുമോ പിന്നെ എന്താണ് മഴ വരുമോ എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറയുകയാ ണെങ്കിൽ കർഷകർക്കും അതിനനുസരിച്ച് പോകാൻ പറ്റും പിന്നെ കർഷകർക്കും ഇതിനെ കുറിച്ച് നല്ല രീതിയിൽ ഒരു ധാരണ വേണം പിന്നെ എന്താണെന്ന് വച്ചാൽ നമ്മൾ പ്രധാനമായിട്ടും പ്രകൃതിയോട് ഉള്ളത് കുറക്കുക പിന്നെ നമ്മൾ കൃഷിക്ക് വളരെയേറെ ഒരു ഇമ്പോട്ടൻസ് കൊടുക്കുക നമ്മളെ ലൈഫിലും എല്ലാത്തിലും അത്രയൊക്കൊ ആണ് എനിക്ക് പറയാനുള്ളത്